കോഴിക്കോട് എല്ലാത്തിലും മുന്നോട്ട് നിൽക്കുകയാണ് ഇപ്പം ഇല്ല ഈ ഒരു കാലഘട്ടത്തിൽ കോഴിക്കോട് നല്ല വ്യവസായങ്ങളും അതുപോലെത്തന്നെ ബിസിനസ്സുകളും കാഴ്ച വെച്ചിട്ടുണ്ട് ബിസിനസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലുലൂ മോള് ഹൈലൈറ്റ് മോള് അതുപോലെത്തന്നെ വലിയ വലിയ മോളുകളൊക്കെ കോഴിക്കോട് കണ്ടുവന്നു കുറേ ഇപ്പം ലുലൂ മാളൊക്കെ പുതുതായിട്ട് തുറന്നതാണ് കോഴിക്കോട്ടിൽ ഹൈലൈറ്റ് മാള് പിന്നെ അതിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ലുലു മാള് ഹൈലറ്റ് മാളൊക്കെ വലിയ വലിയ മാളുകൾ വരെ കോഴിക്കോട് എന്ന നഗരത്തിൽ വന്നു പിന്ന അതുപോലെത്തന്നെ എസ് എം സ്ട്രീറ്റ് അതുപോലെത്തന്നെ വേറെ കുറേ അടിപൊളി കഫെകൾ ഫുഡ് സ്പോട്സ് ഹോട്ടലുകൾ റിസോർട്സ് ഒക്കെ ബിസിനസ്സുകളായിട്ട് കോഴിക്കോട് നല്ല മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വ്യവസായങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കുറേ പലതരം നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇപ്പം കോഴിക്കോട്ടിൽ കോഴിക്കോട്ടിൽ ലുലൂ മോളിൽ ഹൈലൈറ്റ് മോളിലൊക്കെ ഞങ്ങൾക്ക് എമ്പോർട്ടഡായി ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഒക്കെ നമുക്കിപ്പം കിട്ടി വരുന്നുണ്ട് എല്ലായിടത്തും കിട്ടണമെന്നില്ല ഈ സംഭവങ്ങളൊന്നും നമുക്കിപ്പം കുറേ കുറേ സാധനങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്കും കുറേ സാധനങ്ങൾ നമുക്ക് കോഴിക്കോട്ട് നിന്ന് കിട്ടുന്നുണ്ട് അത് പല പല മാളുകളിൽനിന്ന് മാളുകളിൽ മാളുകളിൽ അവർ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളുണ്ട് ഒക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കാനും വ്യവസായങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട്ടിൽ പിന്നെ അതുപോലെത്തന്നെ നമ്മളെ ബിസിനസ്സുകൾ എങ്ങനെ വികസിച്ചു അവ നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അതിൻ്റെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സുകൾ എങ്ങനെ വികസിച്ചു എന്ന് ചോദിക്കുന്നതിൽ കാര്യം ഇല്ല എങ്ങനെയാണ് വികസിക്കാൻ കാരണം എന്നാണ് ചോദിക്കേണ്ടത് കാരണം അത്രക്കും ആൾക്കാർ പുറത്ത് നിന്നും പല പല സ്ഥലത്ത് നിന്ന് കോഴിക്കോട് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് അവരുടെ മെയിൻ അട്രാക്ഷൻ ഓഫ് കോഴിക്കോട് എന്ന് പറയുന്നത് എസ് എം സ്ട്രീറ്റും അതുപോലെത്തന്നെ ബീച്ചും ആണ് അപ്പം എസ് എം സ്ട്രീറ്റിൽനിന്നൊക്കെ പറഞ്ഞത് ഒരുപാട് കടകൾ ഹോൾസെൽ റേറ്റിൽ കൊടുക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെത്തന്നെ ലുലു മാള് ഹൈലൈറ്റ് മാളൊക്കെ വരണമെങ്കിൽ അത്രക്കും കച്ചവടം ബിസിനസ്സ് അവിടെ നല്ല പോലെ നടക്കുന്നത് കൊണ്ടാണ് കോഴിക്കോടിൽ നല്ലംപോലെ ബിസിനസ്സൊക്കെ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അത്രയ്ക്കും റഷ് ആവുന്നത് പിന്നെ ബിസിനസ്സുകൾ സാമ്പത്തിക വികസനവും വെല്ലുവിളികൾ അവസരങ്ങൾ അതെന്താണെന്ന് ചോദിക്കുന്ന ഇതുണ്ട് ബിസിനസ്സുകൾ എന്ന് പറയുന്നത് പലതരം ബിസിനസ്സുകൾ ഉണ്ട് എന്തൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് നമ്മളിപ്പം ബീച്ചിൽ പോയാൽ അവിടെ ഐസ് ക്രീമ് അതുപോലെത്തന്നെ ഉപ്പിലിട്ടത് ചുരണ്ടി ഐസ് ബേക്കറി ബേക്കറി മീൻസ് പൊരിക്കടികളൊക്കെ അവിടെ ഉണ്ട് അതേപോലെത്തന്നെ നമ്മളിപ്പം എസ് എൻ സ്ട്രീറ്റ് പോയാൽ തന്നെ കുറേ തരം ക്ലോത്ത് ഷോപ്പ്സുകളുണ്ട് ഡ്രസ്സിങ് ഷോപ്പുകളുണ്ട് ജ്വല്ലറി ഷോപ്പുകൾ ബാഗ് ഷോപ്പുകൾ അതുപോലെത്തന്നെ ചെപ്പൽസിൻ്റെ ഷോപ്പുകൾ അല്ലാതെതന്നെ നമ്മൾ പുറത്തുപോയാൽ തന്നെ ഒരുപാട് ഹോട്ടൽസും കഫേകളും അതുപോലെത്തന്നെ റിസോർട്സ് ഹോട്ടൽസ് റെസ്റ്റോറൻറ്സ് ഒക്കെ കുറേ കുറേ ബിസിനസ്സുകളാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് സാമ്പത്തിക വികസനം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ട് നിൽക്കുന്നൊരു സംഭവമാണ് കോഴിക്കോട് പിന്നെ അവർക്ക് വെല്ലുവികളികളും അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ കുറേ വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടായിരിക്കും വലിയ വലിയ മോളുകളും അതുപോലെത്തന്നെ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതൊക്കെ ഒരു മികച്ചൊരു സാമ്പത്തികമായിട്ടും ബിസിനസ്സുകളായിട്ടും വ്യവസായങ്ങളായിട്ടും ഒക്കെ മുന്നേറിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് കോഴിക്കോട്